ആ ഞങ്ങൾ ഇവിടെ കേരളത്തിലുള്ളോരല്ലേ കേരളത്തിലെ ഭക്ഷണമെന്നു പറയുന്നത് ഇച്ചരെ മസാലകളൊക്കെ എല്ലാ കൂടിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇച്ചരെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടുതലാണല്ലോ നമ്മുടെ ഭക്ഷണത്തിന് സാധാരണ കാരന് എന്നു പറയുമ്പോഴത്തേന് നമ്മുടെ ഈ കേരളത്തിന് വെളിയിലോട്ടുള്ളോര്ക്കത്ര എരിവൊന്നും വേണ്ട അത്ര പുളിയൊന്നും ആവശ്യമല്ല പക്ഷെ നമുക്കിച്ചരെ എരിവും പുളിയും ഉപ്പുമെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കഴിക്കാനൊക്കെ പറ്റുകയുള്ളു നമ്മുടെ ഞങ്ങളുടെ ഇവിടേ എന്നുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും മീനും ഇറച്ചിയും അങ്ങനെയൊക്കെയാണ് പൊതുവേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ പിന്നെ ഇപ്പോഴത്തെ പിള്ളേര്ക്കൊന്നും അതൊന്നുമത്ര താത്പര്യമൊന്നുമല്ല അവര്ക്ക് ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നു അവര്ക്ക് ഇച്ചരേ കൂടി ഇതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണിഷ്ടം ഇപ്പം കൂടുതലും പിള്ളേര്ക്കൊക്കെ ഇഷ്ടം ചിക്കനും ചിക്കന് വറുത്തതും ബിരിയാണിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ സാധാരണ പണ്ടത്തെ ജനങ്ങളെന്നു പറഞ്ഞാൽ പണ്ടത്തെ ആള്ക്കാർ അമ്മച്ചിമാര്ക്കൊക്കെ ഇഷ്ടം അവര്ക്ക് ചോറും കറികളും തോ തോരനും അവിയലും സാമ്പാറും പപ്പടവും പുളിശ്ശേരി ഓലന് കാളന് ഇതൊക്കെയാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു വിഭവങ്ങൾ അതു നമ്മൾ അത് എല്ലാം കൂടി ആകുമ്പോഴാണ് ഒരു സദ്യയെന്നു പറയുന്നത് സദ്യക്ക് ഉള്ള കറികളെന്നൊക്കെ പറയുന്നത് അതു നമുക്കെപ്പോഴും മലയാളികള്ക്കെപ്പോഴും പ്രീയപ്പെട്ടതാണ് സദ്യയും ആഹാരങ്ങളുമൊക്കെ അതുപോലെ നമ്മളിപ്പോൾ എവിടെപ്പോയെന്നു പറഞ്ഞാലും ഏതു രാജ്യത്തുപോയെന്നു പറഞ്ഞാലും നമ്മൾ ആ നമ്മുടെ ഭക്ഷണം കാണുമ്പോഴത്തേന് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും മറ്റൊള്ള എന്തൊക്കെ കിട്ടിയെന്നു പറഞ്ഞാലും നമ്മുടെ ആ ഒരു ഭക്ഷണം കാണുമ്പോഴത്തേക്കിന് അതു നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അതിന്റെ മസാലകളും കാര്യങ്ങളും ഒക്കെ അതു നമ്മുടെ കേരളത്തിന്റെ ഒരു

നമ്മൾ വീട്ടിൽ മേടിച്ച് അതു പൊടിച്ചെടുത്തിട്ട് അതാണ് സാധാരണ അമ്മച്ചിമാരൊക്കെ അങ്ങനെയാണ് പണ്ടു തൊട്ടേ ചെയ്തു കൊണ്ടിരുന്നേ ഇപ്പം പിന്നെ എല്ലാം കടകളിലെല്ലാം മേടിക്കാന് കിട്ടും പക്ഷെ അതിനകത്തൊക്കെ ഒത്തിരി മായങ്ങളൊക്കെ ഉള്ളതു കൊണ്ട് നമ്മൾ ഞങ്ങളൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ വീട്ടിൽ എങ്ങനേലുമൊക്കെ അതു പൊടിച്ചെടുക്കാനാണ് നോക്കുന്നത് അതു കൂടുതലും കടേന്ന് മേടിക്കുന്നതിനോടൊന്നും വലിയ താത്പര്യമില്ല ആര്ക്കും വിഷങ്ങളൊക്കെ മേടിച്ചു തിന്നണ്ടായെന്നുള്ള ഇതിൽ നമ്മൾ സാധാരണ എല്ലാം മേടിച്ച് അത് പൊടിച്ചെടുത്ത് അന്നിട്ടാണ് നമ്മൾ കറിക്കകത്തൊക്കെ ഉപയോഗിക്കുന്നത് കറിക്കപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേന് അതിന്റേതായിട്ടുള്ള ഒരു രുചിയൊക്കെ കൂടും പിന്നെ ഇറച്ചിയും മീനുമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന മസാലയാണ് നമ്മളതിനകത്തിടുന്നത് ഇറച്ചിക്കും മീനിനും മുളകുപൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടി എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ അതായത് ഉണക്കിപ്പൊടിച്ച് ആ പൊടിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നേ പിന്നങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കിനും അങ്ങനെ എല്ലാം പെട്ടെന്നു പെട്ടെന്നു വേണ്ടതു കൊണ്ട് അതു പൊടിക്കാനും എടുക്കാനുമൊന്നും സമയമില്ലാത്തതു കൊണ്ട് ചിലപ്പം കടേന്നൊക്കെ മേടിക്കാറുണ്ട് കടേന്ന് മേടിക്കുന്നതിന് അത്ര ഒന്നും രുചിയൊന്നും കാണത്തില്ല പിന്നെ ഓരോരുത്തരും ഓരോ മ ആള്ക്കാരും അവന് അവനവന്റെ ഇഷ്ടത്തിനാണല്ലോ ഉണ്ടാക്കുന്നേ അപ്പം ഓരോരുത്തര്ക്കും അവരുടെ കൈപ്പുണ്യമെന്നൊക്കെ പറയുന്നതു പോലെ ഓരോരുത്തരുണ്ടാക്കുമ്പം അതിന്റേതായിട്ടുള്ള ഒരു രുചിയും മണവും ഒക്കെ വ്യത്യാസമായിരിക്കും ഒരാൾ ഒരേ കറി തന്നെ രണ്ടുപേരുണ്ടാക്കിയ രണ്ട് രുചിയായിരിക്കും രണ്ടിനും അങ്ങനെ ഓരോത്തര്ക്ക് അവനേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മുടെ മറ്റുള്ള ഈ വെളിയിലോട്ടൊക്കെപ്പോയി കഴിഞ്ഞാൽ സാപ്പി സായിപ്പമ്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര്ക്ക് ഒരു ബ്രഡേലോട്ട് ഇച്ചിരി ജാമോ അല്ലേ ഒരു മുട്ടയോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണമായി പക്ഷെ നമ്മൾ മലയാളികൾ അതൊന്നും ആരും കഴിക്കത്തില്ല വെളിയിലൊക്കെ പോയെന്നു പറഞ്ഞാലും അവരതിനോട് കുറച്ചു ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ ആയെങ്കിൽപ്പോലും നമുക്ക് നമ്മുടെ ഭക്ഷണം എപ്പോളേലുമൊന്നുണ്ട ഒരുനേരമെങ്കിലും നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കിയ മാത്രമേ ഉള്ളു മലയാളികള്ക്ക് ആ സന്തോഷമുള്ള അതിപ്പം വളർന്നു വരുന്ന തലമുറക്ക് പിന്നെ അങ്ങനത്തെ വലിയ നോട്ടങ്ങളൊന്നുമില്ല പക്ഷെ പണ്ടത്തെ ആള്ക്കാരിപ്പോഴും അതൊക്കെത്തന്നെയാണ് നോക്കുന്നത് അവനവന്റെ ആ ഒരു ഇഷ്ടത്തിന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷത്തോടെ എല്ലാവരും അതാണ് കഴിക്കുന്നത് അതു കൊണ്ട് നമ്മളെപ്പോഴും വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കാന് ഇഷ്ടപ്പെടുന്നവരാണ്